ഹലോ ഹലോ ആ ഫ്യൂച്ചർ ബിൽഡേർസല്ലേ ആ നമുക്കൊരു വീട് വെക്കണമായിരുന്നു അപ്പോൾ ആ എന്നാൽ ആ നമ്മുടെ വീട് നിന്നത് കുറച്ച് വയലിന് സൈഡിലായിട്ടാണ് ചെറുതായിട്ട് വെള്ളത്തിനൊക്കെ ഇഷ്യൂ ഉള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ മണ്ണൊക്കെ ഇട്ട് ലെവലാക്കിയിട്ടുണ്ട് കുറച്ച് ഈ പാടത്തിൻ്റെ ഹൈറ്റിൽ നിന്നും കുറച്ച് ഉയർത്തിയിട്ടുണ്ട് ആ നിരത്തിയിട്ടുണ്ട് നിരത്തിയിട്ടുണ്ട് ഓ നമ്മൾ പഴയ ടൈപ്പ് ഈ തറവാട് ടൈപ്പ് വീടാണ് ആഗ്രഹിക്കുന്നത് ഓ അത് ഒറ്റ നിലകൾ തന്നെയായിട്ട് ആ ആണ് ആ അതെ അതെ അതെ അതെ നടുമുറ്റമൊക്കെ വരുന്ന ടൈപ്പ് ആ കൊടുക്കുന്നുണ്ടല്ലേ ഞങ്ങളൊരു മൂന്ന് ബെഡ്റൂമാണ് ആഗ്രഹിക്കുന്നത് ആ മൂന്ന് ബെഡ്റൂം വരണം ആ ഉണ്ടോ ആ റൂമിനെല്ലാം അത്യാവശ്യം വലിപ്പം വേണം പിന്നെ നമുക്കൊരു ചെറിയ പൂജാമുറി വേണം വീടിനകത്ത് നടുമുറ്റം എന്തായാലും അത്യാവിശ്യമാണ് നമ്മൾ ഒരു പഴയ വീടാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നടുമുറ്റം എന്തായാലും വേണം പിന്നെ ഒരു ചെറിയ പൂമുഖം പഴയ വീടിൻ്റെയൊക്കെ വരാന്ത പോലെയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ ആ അങ്ങനെയൊക്കെ വരുന്ന രീതിയ്ക്ക് ഒരു പൂമുഖം വേണം ഒരു വർക്കേരിയ അതും നമ്മുടെ പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് ഒരു മുറിയൊക്കെ ഉണ്ടാവില്ലേ പത്തായപ്പുര പോലെയൊക്കെ ചെറുത് ആ അതേപോലെ ഒരു മുറി അതിനോട് അടുത്ത് തന്നെയായിട്ട് കിച്ചൺ പിന്നെ പച്ച ആ പൂജാ റൂം വേണം എന്തായാലും പൂജാറൂമിനായിട്ടെന്തായാലും ഒരു സ്ഥലം കണ്ടെത്തണം റൂമിലൊരു കോമൺ ബാത്ത്റൂം വേണം പിന്നെ ബെഡ്റൂമിലെല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്ത്റൂമ് വേണം പിന്നെയൊരു ഹാള് പൂമുഖത്തിൻ്റെ ആ കാര്യം പറഞ്ഞല്ലോ ആ ആ ഡൈനിംഗ് ഹാള് വേണം അത് കൂടാതെ പൂമുഖം കുറച്ച് പൂമുഖമാണ് ഹൈലൈറ്റ് പൂമുഖം കുറച്ച് വലുതായിരിക്കണം

ആണല്ലേ ആ ആ ആ ഓക്കെ നിങ്ങളുടെ ഈ പ്രൈസ് ചാർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വന്നു കാണാം ആ ഓക്കെ ഓക്കെ അത് കുഴപ്പമില്ല ആ നിങ്ങളുടെ അടുത്ത് ഇത് പോലത്തെ വല്ല മോഡൽസൊക്കെയുണ്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത തറവാട് സ്റ്റൈൽ ആ ഓക്കെ ആ അതൊന്നയച്ചുതരണേ ഞാൻ എന്തായാലും ഓഫീസിലോട്ട് വരാം ആ ഓക്കെ താങ്ക്സ്